ഞങ്ങളുടെ പ്രദേശങ്ങളിൽ കൂടുതലായും ആനയും പുലിയുടെയും ശല്യമാണ് വന്യമൃഗങ്ങളുടെ ശല്യമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് വന്യ മൃഗങ്ങൾക്കാണ് എല്ലായിടത്തും മുൻതൂക്കം നൽകുന്നത് അതായതിപ്പോൾ ആന ചവിട്ടിക്കൊന്നു കഴിഞ്ഞാൽ ആനയേ എല്ലാവരും ശുശ്രൂഷിക്കും പക്ഷെ ആ മരിച്ച ആ വ്യക്തിയെ ആർക്കും അങ്ങനെ ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല കാരണം ആ അവർക്ക് ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തികളും നഷ്ടപ്പെടുന്നു അപ്പോൾ ഗവർമെൻ്റ് കുറച്ചുകൂടിയും ശ്രദ്ധിക്കണമെന്നാണ് ഈ എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്നു വെച്ചാൽ ഈ വന്യമൃഗങ്ങളെ ഒരു പരിധിവരെ അവരെ ഈ നാട്ടിലോട്ട് കടന്നു വരാതിരിക്കാനുള്ള എന്താ പറയുക സങ്കീർണ്ണങ്ങളൊക്കെ ചെയ്യണം അവർ മനുഷ്യരെ ഉപദ്രവിക്കാതിരിക്കാൻ ഇപ്പോൾ മനുഷ്യരെ ഉപദ്രവിക്കാൻ വരുന്ന എന്ന മൃഗം എന്ത് മൃഗം തന്നെ ആയാലും അതിനെ നമ്മൾ നേരിടാനുള്ളൊരു ഉപകരണങ്ങളോ ചങ്കൂറ്റമോ മനുഷ്യന് ഇപ്പോഴൊരു കടുവയുടെ മുന്നിൽപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അത്രയും ചങ്കൂറ്റം വേണം കയ്യിലെന്തെങ്കിലും ഉപകരണങ്ങളും വേണം സ്വയം രക്ഷയ്ക്കായിട്ട് എന്തെങ്കിലും ഉപകരണങ്ങൾ വേണം ഈ വന്യമൃഗങ്ങളെ ഒത്തിരി വളർത്തിയെടുത്തിട്ട് ഒരു കാര്യവും ഇല്ല ഈ മനുഷ്യവംശത്തെ കൊന്നൊടുക്കാനായിട്ടാണ് ഈ വന്യജീവി ജീവികളെ വളർത്തുന്നത് ഈ ഈ ഈ മൃഗങ്ങളെ സംരക്ഷിക്കണത് കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ മനുഷ്യരെ ഒന്നു രക്ഷിക്കാൻ പറ്റും ഇത് കുറച്ചുംകൂടി ഇത് നേതാക്കമാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് മനുഷ്യജീവനെ കുറച്ച് വിലയുള്ളതാവും മാധ്യമങ്ങളിത് കുറച്ചുംകൂടി നമ്മുടെ നേതാക്കന്മാരെ അറിയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഈ പിന്നെ മൃഗങ്ങൾക്ക് മുൻഗണന കൊടുത്താൽ അവരെ ലോറിയിലും മറ്റൊരിടത്ത് കൊണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല അതിലും നല്ലത് വന്യമൃഗങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരാതെ സൂക്ഷിക്കുകയാണ് ഏറ്റവും നല്ലത് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്ത് കരുതലുകൾ ചെയ്യണമെന്നാണ് ഇപ്പം നമ്മുടെ പിന്നെ നേതാക്കന്മാരോടും പറയണം അതായത് എനിക്കങ്ങനെ ഒന്നും വലിയൊരു രീതിയിലൊന്നും പറയാനറിയില്ല എങ്കിൽപ്പോലും ഞാൻ എൻ്റെയൊരു ചെറിയ ഇതിൽ പറയുകയാണ് ഈ വന്യമൃഗങ്ങൾ അതായത് ആന പുലി കടുവ ഇത് ഈ നാട്ടിലോട്ട് ഇറങ്ങാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നാണ് എടുക്കണമെന്നുള്ള ഒരു കാര്യം അവരെ ബോധ്യപ്പെടുത്തണം കാരണം മനുഷ്യൻ്റെ ജീവന് അല്പമെങ്കിലും വില കൽപ്പിക്കണമെന്ന് എൻ്റെ അഭിപ്രായം കാരണം എന്നാന്ന് ഈ ആന ചവിട്ടിക്കൊന്ന ആ ഒരു ഇപ്പോൾ ഒരു ഏത് വ്യക്തിയെ തന്നെയായാലും ആ ആന ചവിട്ടിക്കൊന്നു കഴിഞ്ഞാൽ ആ ആനയ്ക്കായിരിക്കും ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്നത് അവ ആനയ്ക്കായിരിക്കും എല്ലാ വിലയും കൊടുക്കുന്നത് അവനെ കൊണ്ടുപോയി അടുത്ത സ്ഥലത്തു കൊണ്ടുപോയി കെട്ടിയിട്ട് അവന് വയറു നിറയെ മടലും വലിച്ചു കൊടുത്ത് ആ അവനെ പൊക്കിക്കൊണ്ടുവിട്ടില്ലെങ്കിൽ അടുത്ത കാട്ടിൽക്കൊണ്ട് വന്ന് വിടും ആ മരിച്ചു പോയൊരു വ്യക്തി ആ മരിച്ചു പോയ വ്യക്തി ആ കുടുംബത്തിനാണ് നഷ്ടപ്പെട്ടത് ഒരു ജീവനു വില കൽപ്പിക്കാത്തൊരു ജീവനൊരു വിലയും ഇപ്പോഴത്തെ കാലത്ത് ഒരു മനുഷ്യരും വില കൽപ്പിക്കുന്നില്ല മനുഷ്യൻ മനുഷ്യനെ വില കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് ഈ അതുകൊണ്ട് എത്രയും പെട്ടന്ന് എത്രയും പെട്ടെന്ന് എന്നല്ല അതിനുള്ള എന്തു ചെയ്യണമെന്ന് അത് അറിയിക്കണമെന്ന് അത് താഴ്മയോടെ അപേക്ഷിക്കുകയാണ് കാരണം ഒരു കുടുംബത്തിൽ അത്താണിയായിരിക്കും നഷ്ടപ്പെടുന്നത് ആ കുടുംബത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകാനുള്ള കെൽപ്പില്ലെങ്കിൽ പിന്നെ ഈ വന്യമൃഗങ്ങളോട് കരുണ കാണിക്കുന്നത് എന്തിനാണ് ആ വന്യമൃഗം ഇപ്പോൾ ഞങ്ങളൂടെ നാട്ടിലെല്ലാം ഈ മുള്ളൻപ്പന്നി ഞങ്ങൾ കൃഷി ചെയ്യുന്നതെല്ലാം മുള്ളൻപ്പന്നി വന്നു നശിപ്പിക്കും നിസ്സാരം മുള്ളൻപ്പന്നി വേണമെങ്കിൽ അതിനെ നമുക്ക് പിടിക്കാം പക്ഷേ ഈ ജയിൽശിക്ഷ കേസും ബാക്കിയുള്ള കാരണങ്ങളൊക്ക അതൊക്കെ ഓർത്തിട്ടാണ് അതിൻ്റെ പുറകേ ഒന്നും പോകാത്തത് അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല പിന്നെ അതിൻ്റെ പേർക്ക് പിന്നെ ഉള്ളതു മുഴുവൻ വിറ്റ് കളയാനുള്ളൊരു സാമ്പത്തികം ഒന്നും ഈ പാവപ്പെട്ട നാട്ടുകാർക്കില്ല അതുകൊണ്ട് എല്ലാ ഈ നാടെന്നല്ല എല്ലാ നാട്ടിലും അങ്ങനെ തന്നെ പല നാടുകളിലും വന്യമൃഗ ആക്രമണത്തിലെത്ര പേർ മരിക്കുന്നു എത്ര പേരെ വന്യമൃഗങ്ങൾ ആക്രമിച്ച് കൊല്ലുന്നു അപ്പോൾ ആ അതെന്നു പറഞ്ഞാൽ ഈ വന്യം മനുഷ്യ ജീവന് പത്തു പൈസയുടെ വിലപോലും ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇല്ല പക്ഷേ വില ഉണ്ടാകണമെന്ന് ഉണ്ടാകണമെന്നും ആ മനുഷ്യജീവന് വില ഉണ്ട് എന്നും അറിയിക്കണമെന്ന് മുതിർന്ന നേതാക്കന്മാരേയും ഈ എന്താ പറയുക അറിയിക്കണമെന്ന് ആണ് എൻ്റെ അഭിപ്രായം കാരണം അതുപോലെയാണ് ഈ ഈ മൃഗങ്ങളെ പണ്ടെന്നു പണ്ടത്തെ കാലത്തൊക്കെ ഈ വേട്ടയൊക്കെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ അവരെയൊക്കെ കുറേ എണ്ണത്തിനെ കൊന്നു കളയുന്നതുകൊണ്ടും മനുഷ്യന് നേരെ ചൊവ്വെ വഴിയിൽക്കൂടി നടക്കാനുള്ളൊരു ധൈര്യമെങ്കിലും ഉണ്ട് ഇപ്പോൾ ഒന്നു ഒരു ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് മുറ്റത്തുപോലും ഇറങ്ങാനുള്ളൊരു ധൈര്യമില്ല